ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഏറ്റവും നല്ല രീതിയിലാണ് നടക്കുന്നത് കാരണം കുട്ടികൾ ചെറുപ്രായം തൊട്ട് അക്ഷരാഭ്യാസം നേടുന്നു സ്കൂളിൽ പോകുന്നു പന്ത്രണ്ട് ക്ലാസ് വരെ അവർ അവിടെ പഠിക്കുന്നു പിന്നത് ടീച്ചേഴ്സിന്റെയും പെരെൻസിൻ്റെയും നോട്ടത്തിൽ തന്നെ അവർ പഠനം ക്രമീകരണം പഠനം നടത്തിക്കൊണ്ടു പോകുന്നു കറക്റ്റായിട്ട് പരീക്ഷകൾ ഇട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ എല്ലാ സ്കൂളുകളും ശ്രമിക്കുന്നുണ്ട് കുട്ടികൾ നല്ല കഴിവുള്ളവരാണ് ഏറ്റോം നല്ല രീതിയിൽ തന്നെ അവരുടെ കഴിവുകളെ വിജയപ്രദമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുപാട് കോഴ്സുകളൊക്കെ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് ഇന്ത്യയിൽ പഠിക്കാൻ സാധിക്കും മറ്റു രാജ്യങ്ങളുമായി കമ്പയറ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളിൽ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അതായത് അവരുടെ കഴിവിനെ തിരിച്ചെടുത്തു കൊണ്ടാണ് വിദ്യാഭ്യാസം നടത്തി കൊടുക്കുന്നത് ഇന്ത്യയിൽ പക്ഷേ സ്ട്രിക്റ്റായിട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠനം പോകുന്നു അത് കഴിഞ്ഞാണ് അവരുടെ എന്താണോ അവർക്ക് താല്പര്യം ആ രീതിയിലുള്ള ഒരു പഠന മേഖലയിലേക്ക് പോകുന്നത് ധാരാളം പ്രൊഫഷണൽ കോഴ്സുകളും അതുപോലുള്ള മറ്റു കോഴ്സുകളിലേക്കും ഒക്കെ കുട്ടികൾക്ക് തിരിയാനുള്ള അവസരം ഇന്ത്യയിലുണ്ട് പക്ഷേ എങ്കിൽ മറ്റു രാജ്യങ്ങളിൽ കുട്ടികളുടെ കഴിവ് എന്താണോ അതിനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി സ്കൂൾ തലത്തിൽ തന്നെ അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് സ്കൂളുകൾ പിന്നെ എനിക്ക് പറയാനുള്ളത് സ്പോർട്സിൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയും ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് സർക്കാരും മറ്റുള്ളവരും അതിനൊക്കെ ഒരുപാട് മുന്നിട്ടാണ് നിൽക്കുന്നത് സ്കൂൾ തലത്തിൽ തന്നെ സ്പോർട്സ് ലെവലിലൊക്കെ കുട്ടികൾ കായിക കഴിവുകളൊക്കെ വികസിപ്പിച്ചെടുത്തോണ്ട് വരാൻ പല ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് ഏറ്റോം മെച്ചപ്പെട്ട രീതി തന്നെയാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പോകുന്നത് എല്ലാവർക്കും നല്ലയൊരു അക്ഷരാഭ്യാസവും നല്ല അറിവും നേടിയെടുക്കാനുള്ള എല്ലാ സൗഹചര്യങ്ങളും ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനുണ്ട് അത് എയ്ജ് പ്രായഭേദമന്യേ എല്ലാവർക്കും അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഏറ്റോം നല്ല രീതിയിൽ തന്നെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പോകുന്നു മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് അവരുടെ നമ്മളുടെ കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം അവർ ആ ഒരു ഒരു ഒന്നിലേക്ക് അടിച്ചേൽപ്പിക്കാതെ പാരൻസും ടീച്ചേഴ്സും ഒന്നിലേക്ക് മാത്രം അടിച്ചേൽപ്പിക്കാതെ അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്ത് ആ ഒരു രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ അവരെ പിന്നെ അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുത്ത് കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാകും ഉണ്ടായിരിക്കും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും പിന്നെ ഇന്ത്യയിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു ഒരു സമയ ക്രമീകരണം ഒക്കെയുണ്ട് ഇന്ന സമയത്ത് പോയി ഇന്ന സമയത്ത് വരണം അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അതായത് പാരൻസൊക്കെ അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കുട്ടികളെ ഹെല്പ് ചെയ്യാൻ കൂടെയുണ്ടാവും ടീച്ചേഴ്സൊക്കെയാണേലും സാധാരണ എല്ലാ കാര്യങ്ങൾക്കും നല്ല പിന്തുണയുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും സർക്കാർ പല സ്കോളർഷിപ്പുകളിലൂടെ ഒക്കെ കൊടുക്കാറുണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പോകുന്നത് പിന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികളുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാൻ കുറച്ചും കൂടി ഒക്കെ മെച്ചപ്പെട്ട രീതി സ്വീകരിക്കാവുന്നതാണ്